ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അറിയാതെ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത് അതായത് ഇപ്പോൾ ആദ്യത്തെ ത്രീ ഐറ്റംസ് ഞാൻ പറഞ്ഞതിലുള്ള ആദ്യത്തെ ത്രീ ഐറ്റംസ് വേണ്ടാത്തതാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള സാ സാധനങ്ങൾ വേണം അപ്പം അത് ആദ്യത്തെ മൂന്നെണ്ണം ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം ഡെലിവർ ചെയ്താൽ മതി അപ്പം അതിന് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റോ അങ്ങനെയെന്തെങ്കിൽ ചെയ്യേണ്ടി വരുവോ ഞാൻ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന സാധനത്തിൻ്റെ പൈസ എപ്പം എനിക്ക് നിങ്ങളയച്ച് തരുവോ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുണ്ടായതിന് സോറി ആദ്യത്തെ ത്രീ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രം ഡെലിവറി ചെയ്താൽ മതി